എനിക്കീന്നു വെച്ചിട്ടുണ്ടെങ്കിൽ ഇപ്പം സിനിമയിലൊക്കെ എനിക്ക് പണ്ടത്തെ അതായത് കാവ്യാമാധവൻ ദാവണിയുടുത്ത് വരുന്നതും പട്ടുപാവാടയിട്ട് കാവ്യാമാധവൻ്റെ മീശമാധവനിലെ കോസ്റ്റുമൊക്കെ ഭയങ്കര ഇഷ്ട്ടമാണ് അതുപോലെയൊക്കെ ദാവണിയൊക്കെ ഉടുത്തിട്ട് ഞാൻ വെറുതെ ഇങ്ങനെ ഫോട്ടോയൊക്കെ എടുക്കും കാവ്യനെപ്പോലെ കണ്ണെഴുതീട്ട് വലിയ പൊട്ടൊക്കെ തൊട്ട് കുങ്കുമം ചന്ദനമൊക്കെ തൊട്ടിട്ട് മുടിയെല്ലാം അഴിച്ചിട്ടിട്ട് അങ്ങനൊക്കെ ഞാൻ എടുത്തേക്കും പക്ഷേ നമുക്ക് എന്തേലും കാവ്യൻ്റെ ഭംഗി നമുക്ക് ഉണ്ടാകൂലല്ലോ പിന്നെ ഇപ്പോഴത്തെയൊന്നും എനിക്ക് വലിയ താൽപര്യമില്ല കാരണം കുറെ വയറും കാണിച്ച് ഒരുമാതിരി വൃത്തികെട്ട ഡ്രസ്സ് ഇട്ട് അതിനോട് എനിക്ക് ഒട്ടും താൽപര്യമില്ല

അവർ രണ്ടുപേരും അങ്ങോട്ടും ഇങ്ങോട്ടും പ്രേമിക്കും പിന്നെ കുറെ പാട്ട് കുറെ പാട്ടിൽ കോ കോണല്ലാത്ത ഡ്രസ്സ് ഇട്ട് കുറെ പെണ്ണുങ്ങൾ തുള്ളും അതൊക്കെ തന്നെ പണ്ടൊക്കെ ഞാനിങ്ങനെ കാവ്യൻ്റെയും ആ ഡ്രസ്സുങ്ങളൊക്കെ എനിക്ക് ഭയങ്കര ഇഷ്ട്ടമാണ്